എനിക്ക് ഏറ്റവും കൂടുതല് ബുക്കുകള് ശുപാര്ശ ചെയ്യാറുള്ളത് എന്റെ കൂട്ടുകാരാണ് ഞാന് കോളേജില് പഠിക്കുമ്പോഴാണ് ഞാന് ഏറ്റവും കൂടുതല് പുസ്തകങ്ങള് വായിച്ചിട്ടുള്ളത് പക്ഷെ ഞാന് പൊതുവേ കടികട്ടിയുള്ള പുസ്തകങ്ങളെക്കാളും അല്ലെങ്കില് സാഹിത്യപരമായ പുസ്തകങ്ങളെക്കാളും വളരെ സിമ്പിളായി വായിച്ചു തീര്ക്കാന് പറ്റുന്ന മനോഹരമായ കഥകളും ഉള്ള പുസ്തകങ്ങളാണ് എപ്പോഴും വായിക്കാന് താല്പര്യപ്പെടാറുള്ളത് എന്റെ ഓര്മയില് എനിക്ക് തോന്നുന്നു ഞാന് കോളേജില് പഠിക്കുന്ന സമയത്താണ് എന്റെ ഒരു കൂട്ടുകാരി എനിക്കൊരു പുസ്തകം റഫർ ചെയ്യുന്നത് ശുപാര്ശ ചെയ്യുന്നത് ഇതിന്റെ നിറമെന്ന് നാന്സി രാജ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ പുസ്തകമായിരുന്നു വായിച്ചു തുടങ്ങിയപ്പോള് എനിക്ക് അത് വളരെ നല്ലതായി തോന്നിയിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാക്കുകളെല്ലാം ഭയങ്കര കടുകട്ടിയായി തോന്നുന്ന പോലെ തോന്നി എനിക്ക് മനസ്സിലാക്കാനായി ഞാന് വേറെ കുട്ടികളോട് വരെ ചോദിക്കേണ്ട അവസ്ഥ വന്നൂ അപ്പം എനിക്ക് വളരെ ഒരു തൃപ്തിയില്ലാതെ തോന്നി ഞാന് ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് അത് വായിച്ചു തീര്ക്കാന് പറ്റില്ല എന്ന് മനസ്സിലായപ്പോള് ഞാന് പാതി വഴിയില് വച്ചു തന്നെ അത് അവസാനിപ്പിച്ചു ആ കുട്ടി അതിനെകുറിച്ച് വളരെ നാന്നായിട്ട് പറഞ്ഞിരുന്നു പക്ഷെ അവള്ക്ക് ആ കാര്യങ്ങൾ കുറിച്ചും അതിലുള്ള ആശയത്തെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു സാഹിത്യം ഇഷ്ടമുള്ളവര്ക്ക് ആ പുസ്തകം വളരെ ഇഷ്ടമാണ് പക്ഷെ എന്നെപ്പോലെ സാഹിത്യം വളരെ സിമ്പിളായിട്ട് വായിക്കണമെന്ന് ആഗ്രഹമുള്ളവര്ക്ക് അങ്ങനത്തെ പുസ്തകങ്ങള് തീരെ താല്പര്യമുള്ളതാവാറില്ല